പ്രപഞ്ചത്തിൽ ജീവനുണ്ടെന്നാണ് ചന്ദ്രൻ സൂര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സയൻസിലും അതുപോലെ സോഷ്യൽ സയൻസിലും എല്ലാത്തിലും നമ്മൾ അങ്ങനെ പറയും പഠിക്കുന്നുണ്ട് എൻ്റെ വിശ്വാസം എല്ലാ സ്ഥലത്തിലും ഗ്രഹങ്ങളിലൊക്കെ ജീവനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ജീവൻ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതു മാത്രമേ എനിക്ക് അറിയുള്ളു ഏറ്റവും നല്ലത് ജീവൻ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസവും അതുപോലെതന്നെ പ്രപഞ്ചങ്ങളിൽ ജീവൻ ഉണ്ട് അതുകൊണ്ടാണല്ലോ നമ്മളും ജീവിച്ചിരിക്കുന്നത് ഓക്സിജൻ ആയാലും എല്ലാം ആയാലും ബാക്ടീരിയ അങ്ങനെയൊക്കെ പറഞ്ഞ ജീവൻ ഉണ്ടല്ലോ അതുപോലെയാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ ബാക്ടീരിയ ആയാലും എന്തായാലും നമുക്ക് ജീവനുണ്ട് അതുപോലെതന്നെ പ്രപഞ്ചത്തിൽ ചന്ദ്രനു ജീവനുണ്ട് സൂര്യനും ജീവനുണ്ട് എല്ലാവർക്കും ജീവനുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ഹ്യൂമാനിറ്റീസിലും സോഷ്യോളജിയിലൊക്കെ പഠിപ്പിക്കുന്നത് കൂടുതലും അതാണിപ്പോൾ പഠിപ്പിക്കുന്നത് അതേപോലെതന്നെ നമ്മൾ പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രപഞ്ചങ്ങൾക്ക് ജീവനുണ്ട് ചന്ദ്രനായാലും ഗ്രഹങ്ങളിൽ ഓരോന്നിലും ഓരോ ജീവനും സെല്ലുകളൊക്കെ ഉണ്ടെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്